ആ ഇത് ഫ്രൂട്ട്സ് സ്റ്റോർ അല്ലേ ഹലോ ഇത് ഫ്രൂട്ട്സ് ഷോപ്പ് അല്ലേ

ആ എനിക്ക് വലിയ പഴം വേണം ഒരു രണ്ട് കിലോ ആ രണ്ട് കിലോ വേണം ഇതിന് എത്രയാണ് റേറ്റ് നൂറ്റിയൻപതോ ആ ആ ഓക്കെ ആ പിന്നെ ബനാന പിന്നെ ആപ്പിൾ ഉണ്ടോ മാം ആപ്പിളിന് എത്രയാണ് ആ ഓക്കെ അപ്പോൾ അത് ഒരു അത് മൂന്ന് കിലോ വേണം ആപ്പിൾ മൂന്ന് കിലോ ബനാന രണ്ട് കിലോ ആ സ്ട്രോബെറി ഉണ്ടോ മാം സ്ട്രോബെറി ഫ്രഷ് തന്നെ വേണം ഫ്രഷ് ഓക്കെ മാം ഓക്കെ

കിവി കിവി ഉണ്ടോ മാം ആ മാം ഹോം ഡെലിവറി ഉണ്ടല്ലോ ആ ഓക്കെ ഹോം ഡെലിവറി ചെയ്യണം കേട്ടോ ഞാൻ പറഞ്ഞ ആ ആ അത് ഞാൻ പറഞ്ഞ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവണം കേട്ടോ ആ ഓക്കെ പിന്നെ കിവി ഉണ്ടെങ്കിൽ കിവി സ്ട്രോബെറി ഒക്കെ ഹോം ഡെലിവറി ചെയ്യണം കേട്ടോ ആ ഓക്കെ മാം രണ്ട് കിലോ മതി മാം ഓക്കെ മാം ഓക്കെ ശരി ഉം ആ